ഹലോ ഹലോ എൻ്റെ പേര് എഡ്രിയാൻ എന്നായിരുന്നു എഡ്രിയാൻ ബെഞ്ചമിൻ ജോസഫ് ഞാനൊരു ടൂറിസ്റ്റായിരുന്നു അപ്പം എനിക്കൊരു ബൈക്ക് ബൈക്ക് റെൻറ്റിന് കിട്ടുന്ന സ്ഥലത്തെ ഓണറല്ലേ ആ ഓക്കെ ഓക്കെ ആ ഞങ്ങൾക്ക് ഒരു എനിക്കൊരു ബൈക്ക് വേണമായിരുന്നു അപ്പം ഒരു മാസത്തെ റെൻറ്റിന് വേണ്ടി അല്ല ഏത് ബൈക്കാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് ഏതൊക്കെ ഉണ്ട് ഏതൊക്കെയാണ് അവിടെ അവൈലബിളായിട്ടുള്ളത് ഉണ്ട് പിന്നെ എന്തൊക്കെയാവും റേറ്റും എല്ലാം ഉണ്ടല്ലെ ഓക്കെ ഓക്കെ അവിടെ എവിടെ അവിടെ എന്താണ് എം ടി ഫിഫ്റ്റീൻ ഉണ്ടോ എം ടി ഉണ്ട് പിന്നെ ഏതൊക്കെയാണ് ഉള്ളത് ഹിമാലയ ഉണ്ടോ എക്സ് പ്ലസ് അങ്ങനെ എല്ലാം ബൈക്കിൻറ്റെയും ആ എല്ലാം ബൈക്കിൻറ്റെയും പറഞ്ഞ ആ റേറ്റിങ് പറയാവോ ഒരു മാസത്തേനായിരുന്നു വേണ്ടത് എനിക്ക് ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു അതിന് പോകാൻ വേണ്ടിയാണ് അപ്പം ഞങ്ങൾ രണ്ട് ട്രെയിനിസ് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ പോകാൻ വേണ്ടിയാണ്

അല്ല സാർ അല്ലഅല്ലഅല്ല എനിക്ക് പത്തൊൻപത് വയസ്സുണ്ട് ലൈസെൻസായിട്ടുണ്ട് ലൈസെൻസ് ആയതാണ് ടു വീലറിന് ലൈസെൻസുണ്ട് ഫോർ വീലറില്ല ടു വീലറുണ്ട് എല്ലാ എല്ലാ ബൈക്കിൻറ്റെം പറഞ്ഞ റേറ്റ് ഒന്ന് പറയാവോ എഫ് സിക്ക് എത്രയാകും ഡേയ് ഡേ ഡേ ഒരു ഡേയിൽ എത്ര രൂപയാവും എഫ് സി എഫ് സി എഫ് സി പെർ ഡേ ഇരുന്നൂറ്റമ്പത് അല്ലേ ഓക്കെ ഓക്കെ ഏറ്റവും കൂടിയത് ഹൈയസ്റ്റ് പ്രൈസുള്ളത് ഏതാണ് ആവും അല്ലേ ബുള്ളറ്റിനോ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് റേറ്റോ ആ ബുള്ളെറ്റെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു മാസത്തേക്ക് ബുള്ളറ്റിൽ പോകാൻ എനിക്ക് താൽപര്യം ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് തരാമോ ഏട്ടാ ആ എനിക്ക് താൽപര്യം ഉള്ളത് രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അതിൽ ഏതേലും ഒരണ്ണം റേറ്റ് കുറച്ച് ചേട്ടൻ കുറച്ച് തരികയാണെങ്കിൽ എടുക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ ഓക്കെ ആണല്ലേ ഈ എക്സ് പ്ലസ്സിന് എത്രയാവും നല്ല മൈലേജുണ്ടോ മൈലേജുണ്ടല്ലേ ഓക്കെ ഓക്കെ അവിടെ ഈ കൊടുക്കുന്നതിന് പറയുമ്പം അത്യാവശ്യം രണ്ട് മൂന്ന് വർഷത്തിന് ഇടയ്ക്ക് നിൽക്കുമ്പം എന്നുപറയുമ്പം ഫർസ്റ്റ് ഹാൻഡ് ആണോ അതോ ഇങ്ങനെ ഉപയോഗിച്ച് വന്നതാണോ മേടിച്ചിട്ടേക്കുന്ന വണ്ടികളാല്ലേ ആ ഓക്കെ ഓക്കെ അങ്ങനെ അല്ലേ അപ്പം ഈ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്തേലും സംഭവിച്ചാൽ നമ്മൾ തന്നെ അല്ലേ പണി പണിചെയ്ത് തരേണ്ടത് എല്ലാം ചെയ്ത് തരണം അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് എക്സ് പ്ലസെടുക്കാൻ താൽപര്യം ഉണ്ട് എക്സ് പ്ലസ് ഒരു മാസത്തേക്ക് എടുക്കാൻ വേണ്ടി താൽപര്യം ഉണ്ട് അപ്പം അതിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ എന്നാണ് വരേണ്ടത് ഞാനിപ്പം ഇവിടെ കോട്ടയത്ത് ഉണ്ട് നാളത്തേന് വന്നാൽ മതിയോ നാളെ രാവിലെ വരാം ഒരു ഒൻപത് പത്ത് മണിയൊക്കെ ആകുമ്പഴത്തേക്കും പതിനഞ്ച് ദിവസത്തെ ഒന്നിച്ചടയ്ക്കണം അല്ലേ അത് എത്രയാണ് ഒരു തുകയൊന്ന് കൂട്ടിയിട്ട് പറയാവോ ഒന്ന് നോക്കിയെ പതിനഞ്ച് ഇൻറ്റൂ നാനൂറ്റി അൻപതല്ലേ നാനൂറ്റി അൻപത് ഇൻറ്റു പതിനഞ്ച് ഞാൻ നോക്കിയിട്ട് പറയാവെ ഒന്ന് കാൽക്യൂലേറ്റ് ചെയ്തോട്ടെ പതിനഞ്ച് ഇൻറ്റു എത്രയാണ് മുന്നൂറ്റി അൻപതോ മുന്നൂറല്ലേ നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ഒരുമിച്ചടയ്ക്കണം ആ ഓക്കെ ചേട്ടാ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാനും ഒരാളും കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാളെ വന്നെടുത്തോളാം ആ ഓക്കെ ഹെൽമെറ്റൊക്കെ ഞങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ വേറെ ലൈസെൻസ് അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ ഓക്കെ ചേട്ടാ ഓക്കെ നാളെ ഞങ്ങൾ വരാമേ ആ ഓക്കെ ഓക്കെ ശരി ചേട്ടാ താങ്ക്യൂ